അത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ വായ്പ എടുക്കുന്നത് സാധാരണമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കുടുംബങ്ങളിലുള്ളവർ വായ്പ് എടുക്കുന്നത് ഒന്നുകിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ പണമില്ലാത്ത അവസ്ഥയിൽ അവർ വായ്പ്പ എടുക്കുന്നു അത്പോലെ തന്നെ വീട് വാങ്ങിക്കാൻ വസ്തു വാങ്ങിക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും വായ്പ എടുക്കാറുണ്ട് ഇതിന് പ്രധാനമായിട്ടും സമീപിക്കേണ്ടത് ബാങ്ക് വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഇടപാടുകാരെയാണ് ബാങ്കിലുള്ള ആൾക്കാരെയാണ് സാധാരണയായിട്ട് ഇതിന് സമീപിക്കേണ്ടത് ചില വ്യക്തികൾ വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് പലിശ കുറേ നൽകുന്ന ബ്ലേഡ്കാർ എന്നറിയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വായ്പ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇത്തരക്കാർക്ക് തങ്ങളുടെ അവർ എടുത്ത പൈസയേക്കാൾ മുതലിനേക്കാൾ അധികം പലിശ കയറി അത്തരത്തിലുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തെ തന്നെ ജീവിതത്തെക്കുറിച്ച് തന്നെ പരിതപിക്കാറുണ്ട് ചെറിയ അളവിൽ ചെറിയ അതായത് ചെറിയ പലിശക്ക് പണം കടം എടുക്കുന്നവർക്ക് മാത്രമേ അത് നിശ്ചിത സമയത്തിനുള്ളിൽ അത് വീട്ടാൻ വേണ്ടിയിട്ടും യഥാസമയം വായ്പ്പ തീർക്കാനുമൊക്കെ സാധിക്കുകയുള്ളു ഒരു പ്രാവശ്യത്തെ ഘടു അടച്ച് അടച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യമടക്കാൻ വേണ്ടിയിട്ട് ഈ വായ്പ എടുക്കുന്ന ഈ സാധാണക്കാരായ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വായ്പ എടുക്കുമ്പോൾ ഓരോ വ്യക്തികളും തങ്ങൾക്ക് വായ്പ്പ അടയ്ക്കാനുള്ള കാശുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ജീവനേയും ജീവിതത്തേയും കടുംബത്തേയും ഒക്കെ ഇല്ലാതാക്കി സ്വയം ജീവനെ ഇല്ലാതാക്കി പോകേണ്ട അവസ്ഥകളിലേക്ക് പല കുടുംബങ്ങളും ഇന്ന് എത്തി ചേരുന്നുണ്ട് അതുകൊണ്ട് വായ്പ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഘടുക്കൾ അടക്കാനുള്ള കഴിവ് തങ്ങൾക്കുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഓരോരുത്തരും വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് വായ്പ്പയ്ക്ക് മേൽ വായ്പ ആയി ഈ കുടുംബത്തേയും ജീവനേയും നശിപ്പിക്കേണ്ട അവസ്ഥ ഒരു വ്യക്തികൾക്കും ഉണ്ടാകരുത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്ന ഓരോ ജോലിയും അതിൽ നിന്ന് മിച്ചം പിടിച്ച് മറ്റു അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവഴിക്കാതെ മിച്ചം വച്ച് തങ്ങളുടെ ജീവിത ചിലവുകൾ നിവൃത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ഓരോരുത്തർക്കും തങ്ങളുടെ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും കടമെടുപ്പിലേക്ക് പോകണ്ടി വരുന്നത് പണമെടുക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായ ബോധ്യവും ഒരു വരും കാലത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഉണ്ടെങ്കിൽ മാത്രമേ അവർ യാഥാർത്ഥത്തിൽ വായ്പ്പ എടുക്കുന്നതിനെ കൃത്യമായിട്ട് അടയ്ക്കുകയും നല്ല രീതിയിൽ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു